ഞാൻ ഓൺലൈനിലൊരു ദിവസം മേടിച്ചോരു ഹെഡ് സെറ്റ് ആദ്യ ദിവസങ്ങളിൽ കുഴപ്പമില്ലായിരുന്നു പിന്നീട് കുറച്ച് ദിവസങ്ങൾ ഒരു മാസം കഴിഞ്ഞപ്പത്തേനും അത് ഇടത് സൈഡിലെ കേൾക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇടക്ക് ക്ലാരിറ്റി കുറയുന്നുണ്ടായിരുന്നു പതുക്കെ പതുക്കെ കേട്ടാലാ പതറിയ ശബ്ദങ്ങളക്കെയായിരുന്നു പിന്നീടത് വീണ്ടും അത് കംപ്ലീറ്റ്ലി ഒന്നും കേൾക്കത്തില്ലാത്തൊരു സിറ്റുവേഷന വന്നു പിന്നെ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ വല്ലതും മിച്ചം വലതു സൈഡിലെ ഹെഡ് സെറ്റും ഒന്നും കേൾക്കത്തില്ല ഇടക്ക് വരും ഇടക്ക് കേൾക്കും ഇടക്ക് കേൾക്കത്തില്ല വീണ്ടും കേൾക്കും വീണ്ടും കേൾക്കത്തില്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ സ ക്ലാരിറ്റി കുറഞ്ഞു പിന്നീട് ഒത്തിരി നേരോന്നും കേൾക്കൻ പറ്റാത്ത സിറ്റുവേഷൻ ഇടക്ക് വല്ലപ്പോഴും വർക്കാവും അങ്ങനെയൊക്കൊരു സിറ്റുവേഷൻ ഓൺലൈനിൽ മേടിച്ച് സംഭവം സംഭവിക്കുക ചെയ്തായിരുന്നു